മൃഗവളർത്തൽ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യ സുരക്ഷയ്ക്കും ഒത്തിരിയേറെ പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ള വസ്തുത നമ്മുടെ ഗ്രാമങ്ങൾ തന്നെ അതിന് തെളിവാണ് മൃഗത്തിൻ്റെ നമ്മളിപ്പം പശു പോത്ത് അതുപോലുള്ള മൃഗത്തിൻ്റെ ചാണകം ഏറ്റവും നല്ലൊരു വളമായിട്ടാണ് നമ്മളിന്ന് വാഴ കൃഷിക്കായാലും പച്ചക്കൃഷിക്കായാലും അതിനൊക്കെ നമ്മളേറ്റവും നല്ല വളമായിട്ടാണ് ഉപയോഗിച്ചുവരുന്നത് അപ്പോൾ അതുപോലെ മൃഗത്തിൻ്റെ മാംസം നമ്മൾ വളരെ അധികം വളരെ അധികം പേരും നമ്മുടെ ഗ്രാമത്തിലാണെങ്കിലും നമ്മുടെ പ്രദേശത്ത് വളരെധികം ജനസംഖ്യയിൽ വളരെ അധികം പേരും തൊണ്ണൂറ് ശതമാനത്തിലധികമാളുകളും മാംസം ഉപയോഗിക്കുന്നവരാ നമുക്ക് വിശ്വസിച്ച് വിശ്വസനീയമായ രീതിയിൽ മാംസം ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പാലുല്പന്നങ്ങൾ പാലുല്പന്നങ്ങളിൽ മായം ഇല്ലാതെ മായം ഇല്ലാത്ത പാലുല്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഈ പശു വളർത്തലിലൂടെ അപ്പോൾ മറ്റ് പാലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റ് ഉല്പന്നങ്ങളൊക്കെ തൈര് മോര് വെണ്ണ ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിലെന്നും നമ്മുടെ ഭക്ഷ്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഈ നമ്മുടെ ഈ പ്രദേശത്ത് ഒത്തിരിയേറെ ആളുകൾ ഈ പശു വളർത്തലിൽ ഇന്ന് ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ് അതിനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പശുവിനേയും മറ്റ് മൃഗങ്ങളെയുമൊക്കെ വളർത്തുമ്പം അതിനുകൊടുക്കുന്ന തീറ്റയുടെ ദൗർലഭ്യം തീറ്റയുടെ വില വർദ്ധനവ് ഇതൊക്കെ സഹിച്ച് നമ്മളത്രയും ഒരു ശ്രമകരമായ ആദായം ഈ പശു വളർത്തലല്ലെങ്കിൽ മറ്റ് മൃഗ വളർത്തൽ കൊണ്ട് ജീവിതത്തിന് ആവശ്യമായൊരു ആദായം ഉണ്ടാക്കി എടുക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് മൃഗങ്ങളെ വളർത്തലിലേർപ്പെട്ടിരിക്കുന്ന കർഷകർ ഇത് നമ്മുടെ പ്രദേശത്തുള്ള ഏജൻസികൾ സർക്കാർ ഏജൻസികൾ ഇപ്പം നമ്മുടെ പ്രദേശത്തെ ഭരണ പഞ്ചാ നമ്മളെ പ്രദേശത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇതുപോലെയുള്ള ഏജൻസികളാണ് ഇത് ശരിക്കും അത് ഓരോ കർഷകനും നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് ഇപ്പം പശു വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നൊരു കർഷകനെ സംബന്ധിച്ചെടുത്തോളം പശുക്കുട്ടികളെ വാങ്ങുന്നതിന് പശുവിനെ വാങ്ങുന്നതിന് നമ്മളെ ഈ പ്രദേശത്തുള്ള ഒരു സർക്കാർ ഏജൻസിയും സബ്സിഡി അടക്കമുള്ള യാതൊരുവിധ കാര്യങ്ങളും കർഷകന് നല്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു വസ്തുതയാണ് അപ്പം ഈ കാർഷികവൃത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പാലുല്പന്നങ്ങളുപയോഗിക്കുന്നൊരു സമൂഹം ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ പശു വളർത്തലിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് വളരെ അടിയന്തരമായി നല്ല പശുക്കളെ പശുക്കുട്ടികളെ ലഭിക്കുന്നതിനും ആ പശുക്കുട്ടികൾക്ക് വാങ്ങുന്നതിനുള്ള കർഷകൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് കർഷകർക്ക് വായ്പ്പകൾ ലഭ്യമാക്കുന്നതിന് വിവിധ വായ്പ്പ ഏജൻസികളെ നമ്മുടെ ബാങ്കുകളെ വായ്പ്പകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ബാങ്കുകളെ പ്രേരിപ്പിക്കുകയും അങ്ങനെ വായ്പ്പ എടുക്കുന്ന കർഷകന് സബ്സിഡി നൽകിക്കൊണ്ട് ആ കർഷകരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ടു കൊണ്ടുവരേണ്ടതിൻ്റെയും ആവശ്യകത മനസ്സിലാക്കി നമ്മുടെ ഗ്രാമീണ ഏജൻസികൾ അതായത് കാർഷിക നമ്മുടെ കൃഷി ആഫീസ് കൃഷിഭവനുകൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ നമ്മുടെ വാർഡ് തലത്തിൽ ഉള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് കർഷകർക്കിതേക്കുറിച്ച് ബോധവൽക്കരണം നൽകണം ബോധവൽക്കരണം നല്കുന്നതിനോടൊപ്പം കർഷകൻ്റെ ആ ബുദ്ധിമുട്ടുകളും ആ കാർഷിക വൃത്തിയിലവർ നേരിടുന്ന പ്രശ്നനങ്ങളും നേരിട്ട് മനസ്സിലാക്കി പരിഹാരമാർഗ്ഗം നിർദ്ദേശിക്കണം ഒത്തിരിയേറെ കർഷകരിന്ന് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് കുളമ്പ് രോഗം അപ്പം കുളമ്പ് രോഗമാണെങ്കിലും എന്താണെങ്കിലും മൃഗവളർത്തൽ കാർഷിക ഉപജീവനമാർഗ്ഗമായി സ്വീകരിച്ചിരിക്കുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് രോഗനിവാരണത്തിനുള്ള ഇന്നുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള ഫലപ്രദമായ കാര്യങ്ങൾ നമ്മുടെ ഗ്രാമ അന്തരീക്ഷത്തിൽ വാർഡ് തലത്തിൽ നടപ്പാക്കുവാനായിട്ട് ഈ ഏജൻസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഇത്തരം മൃഗം വളർത്തൽ കാർഷ അഭിവൃദ്ധിയിലേർപ്പെട്ടിരിക്കുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവേ ശേഖരിക്കുകയും അവരുടെ ജീവിതനിലവാരത്തെക്കുറിച്ച് അവരേർപ്പെട്ടിരിക്കുന്ന തൊഴിലിൽ അവരുടെ ജീവിതനിലവാരത്തെക്കുറിച്ച് പഠിക്കുകയും പിന്നോക്കം പോകുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം തീറ്റ പുൽക്കൃഷി തീറ്റ പുൽ കൃഷി ചെയ്യുന്നതിനും കർഷകന് മൃഗങ്ങൾക്ക് വേണ്ട തീറ്റ ഉണ്ടാകുന്ന ഇന്നത്തെ തീറ്റയുടെ വില വർദ്ധനവെന്ന് പറയുന്നതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത കാര്യമാണ് അതിനൊപ്പം ആ മൃഗ ഉല്പന്നങ്ങളിലും പാലുല്പന്നങ്ങൾക്ക് അതിനനുസരിച്ച വിലയും കിട്ടുന്നില്ല അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കർഷകർക്കും ഈ കർഷകരുടെയിടയിൽ ബോധവൽക്കരണം നടത്തി എല്ലാ കർഷകരെയും ഈ തൊഴിൽ വൃത്തിയിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും സഹകരണവും സർക്കാർ ഏജൻസികൾ നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം